ഇപ്പോൾ ഈ വിനോദം എങ്ങനെ നമ്മളാലോചിക്കണതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറെ നമ്മളുത്സവങ്ങളൊക്കെ മെയിനായിട്ട് കുറെ ഓരോരോ പെരു ഈ വിനോദവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ നമ്മൾ നോക്കണതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ മച്ചേഡ് മാമാങ്കം മച്ചേഡ് മാമാങ്കത്തിലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ കൃത്രിമമായിട്ട് ഈ കുതിരേനെ കുതിരയുടെ പോലത്തെ സംഭവം ഉണ്ടാക്കി കെ കെട്ടുകുതിരയെന്ന് പറയും അതിന് അതുണ്ടാക്കിയിട്ട് അത് നമ്മൾ ഒരു ഒരു ഹൈറ്റില് കുറച്ച് ഹൈറ്റിലായിട്ടൊരു എന്താ പറയുക ഒരു തുണി തുണി പോലത്തത് വലിച്ച് കെട്ടിയിട്ടുണ്ടാവും അതിലേക്ക് എറിഞ്ഞ് കൊള്ളിക്കുക അതാണ് അതിലൊരു മത്സരമൂല്യം അല്ലെങ്കിൽ മത്സരബുദ്ധിയെന്ന് പറഞ്ഞാൽ അതിൽ അങ്ങനെയാണ് വരണത് അപ്പോൾ അതിൽ എത്ര ഹൈറ്റിൽ എറിയാൻ പറ്റണതും അതിൽ നമുക്ക് മെയിനായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങള് വരും ഇത് നമ്മള് ജസ്റ്റ് എറിഞ്ഞാൽ മാത്രം പോരാ ഇത് മുകളിലേക്ക് എറിയണ സമയത്ത് എല്ലാവരും ഇപ്പോൾ ആ നിൽക്കണ ഒരു പത്തിരുപത് പേരുണ്ടെങ്കിൽ ആ എല്ലാവരും ഒരേ ടൈമിങ്ങില് കറക്ടായിട്ട് എറിഞ്ഞാൽ മാത്രമേ അത് കറക്ടായിട്ട് മുകളിലേക്ക് പോവുകയുള്ളൂ ഇല്ലെങ്കിൽ അത് ചെരിഞ്ഞ് പോവും ഇല്ലെങ്കിൽ അത് കറക്ടായിട്ട് ഇവിടെ ആദ്യം ഫ്രണ്ട് പൊങ്ങും പിന്നെ ബാക്ക് പൊങ്ങും അങ്ങനെയൊക്കെ ആവും അപ്പോൾ അത് അവരുടെ ഒരു ഒരുമയും അതുപോലെ തിരിച്ച് വരണ സമയത്ത് ഒരേപോലെ പിടിച്ചില്ലാന്ന് പറഞ്ഞ് അതിൻ്റെ വന്ന് കാല് നിലത്തടിക്കും അപ്പോൾ അത് കേട് വരും അപ്പോൾ നമുക്കൊരു ഐക്യവും കാര്യങ്ങളൊക്കെ അതിൽനിന്ന് ഉണ്ടാക്കാൻ പറ്റും പിന്നെ നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ തൃശൂർ പൂരം തൃശൂർ പൂരത്തിലും ഇതേപോലെ ആവശ്യത്തിന് എന്താ പറയുക മൂല്യവും പിന്നിഷ് അവിടെ നമ്മൾ കുറേ ആൾക്കാരുടെ ഒത്തൊരുമയും കൂട്ടായ്മയുമൊക്കെ കാണാൻ പറ്റും പിന്നെ ചെട്ടിക്കുളങ്ങര ഭരണി പിന്നെ അങ്ങനെ പല പല പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ഉത്സവങ്ങൽ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ വിനോദമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടക്കുന്നുണ്ട് ഓരോത്തരും എന്ന് പറഞ്ഞാൽ ഓരോ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലുള്ള അവരുടെ ആചാരങ്ങള് അനുഷ്ഠിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഇത് നമുക്ക് കാണാൻ പറ്റും